ബൈക്കുകളിലെ സസ്പെൻഷനിൽ നിന്ന് നേടാൻ ആഗ്രഹിക്കുന്ന അനുസരണവും പിന്തുണയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതില് നിന്നാണ് സാധാരണമായി സസ്പെൻഷൻ യാത്ര നമ്പറുകൾ വരുന്നത് സസ്പെൻഷൻ റൈഡറെ ട്രേലിൽ നിന്ന് എങ്ങനെ വേർത്തിരിക്കുന്നുവെന്ന് ബൈക്കിന് ദിശ നൽകാൻ ഉപയോഗിക്കുന്ന റൈഡർ ഇൻപുട്ടുകളോട് സസ്പെൻഷൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നുമാണ് സസ്പെൻഷൻ പലയിടങ്ങളിലായും ഏറ്റവും കൂടുതൽ നമ്മള് വെല്ലുവിളി നേരിടുന്നത് ബൈക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അതായത് കുണ്ടും കുഴിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് നമ്മള് ബൈക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ബൈക്ക് യാത്രയെന്ന് പറയുന്നത് നമുക്ക് ഇടവഴികളിലും മറ്റു വഴികളിലുമൊക്കെ നമുക്ക് പോകാനെളുപ്പമാണ് അത് ഓർത്തിട്ട് നമ്മളെല്ലാവരും എല്ലാ വഴിയിലൂടെയും ഇടവഴികളിലൂടെയുമെല്ലാം ബൈക്ക് യാത്ര ചെയ്യുന്നു അപ്പോള് നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് താണ്ടേണ്ടി വരുന്നുണ്ട് അതായത് കുഴികളിലായിട്ടും റോഡ് ഈ പല കീറിമുറിച്ചിരിക്കുന്നു ആ കീറിമുറിച്ചതൊക്കെ നമുക്ക് താണ്ടാന് ഭയങ്കരം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ബൈക്ക് യാത്ര നമ്മള് ചെയ്യുമ്പോള് കിട്ടുന്നത് ഏറ്റവും കൂണ്ടുകള് നിറഞ്ഞ ചില പാതകള് അതായത് വഴികള് ഏതൊക്കെയെന്ന് ചോദിച്ചാല് എനിക്ക് ഏറ്റവും കുണ്ടുകള് നേരിടേണ്ടി വന്ന പാതയാണ് നമ്മുടെ മുക്കം റോഡ് നമുക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട് റോഡ് പണി ചെയ്യുമ്പോഴും അങ്ങനെ കുണ്ടും കുഴികളിലും നമ്മള് പോയി വീഴേണ്ടിയും വന്നിട്ടുണ്ട് ബൈക്ക് യാത്രയാകുമ്പോള് നമുക്ക് ഏത് ഇടവഴിയിലും കൂടി പോകാമെന്നുള്ളൊരു ഈയൊരു ഉദ്ദേശമാണല്ലോ നമുക്കുണ്ടാകാറ് ആ ഉദ്ദേശത്തില് പലയിടങ്ങളിലൂടെ നമ്മള് ഹെൽമെറ്റ് ധരിച്ചും അല്ലാതെയും നമ്മള് ബൈക്ക് യാത്ര ചെയ്യുന്നു അങ്ങനെ പോകുന്നയിടത്ത് നമ്മള് വെള്ളം മഴവെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്താകുമ്പോള് ആ കുഴിയിൽ നിറച്ച് വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ബൈക്ക് യാത്ര ചെയ്യുമ്പോള് നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ മറ്റു വാഹനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല ബൈക്കാകുമ്പോള് നമ്മള് ആ കുഴിയില് പോയി വീഴും ആ കുഴിയിൽ പോയി വീണും പല ആക്സിഡൻറ്റും കാര്യങ്ങളും നമുക്ക് പറ്റുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാടുകളിൽ തന്നെ റോഡ് പണിയെടുക്കുമ്പോഴൊക്കെ നമ്മള് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ചെറുവാടി ഭാഗം അരീക്കോട് ഭാഗം പിന്നെ കൊടിയത്തൂര് ഭാഗം അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോള് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒന്നും രണ്ടും പേര് പോകുമ്പോൾ മാത്രമല്ല ഒരാള് പോകുമ്പോഴും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബൈക്കില് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് വേണം ബൈക്കില് യാത്ര ചെയ്യാവൂ അല്ലെങ്കിൽ നമുക്കൊരുപാട് നഷ്ടങ്ങൾ വരും